ഞാനങ്ങനെ ഒരു ഫോട്ടോ അങ്ങനെ എടുക്കുന്ന കൂട്ടത്തിലുള്ള ആളല്ല ശരിക്കിലും പക്ഷെ എന്നാൽ എന്നാൽ എടുക്കേണ്ട ആവശ്യം വന്നാൽ ഇപ്പം എടുക്കേണ്ട സിറ്റുവേഷൻ വന്നാൽ പോലും വലിയ പ്രൊഫഷണൽ അല്ല പക്ഷെ എന്നാൽ പോലും അത്യാവശ്യം എടുക്കുക എന്നുള്ള രീതിയിലാണ് എനിക്ക് അറിയത്തുള്ളൂ ഇപ്പോൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഇപ്പം സാധാ ഫോണിലാണെങ്കിൽ പോലും ഒരു അത്യാവശ്യം ആവറേജ് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കുക ആണ് കിട്ടത്തുള്ളൂ ബട്ട് ഇൻ കേസ് കുറച്ച് പ്രൊഫഷണൽ ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ആരുടെയെങ്കിലും കൈയ്യിൽനിന്ന് ഒരു നല്ല കൂടിയ ക്യാമറയോ ഇപ്പം ഐഫോണ് ആണെങ്കിൽ അല്ലെങ്കിൽ സാംസങിൻ്റെ ഏറ്റവും കൂടിയ ഏതെങ്കിലും ഫോണുള്ള ആരുടെയെങ്കിലും ഒക്കെ കൈയ്യിൽനിന്നൊക്കെ ചോദിച്ച് വാങ്ങിച്ചിട്ട് അന്നേരം ഫോട്ടോ എടുക്കും എന്നിട്ട് ആ ഫോട്ടോസ് ഒക്കെ ആണെങ്കിൽ എൻ്റെ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് സാധാരണ ഇപ്പോഴത്തെ ഫോണുകളിലൊക്കൊ ആണെങ്കിൽ ഫോട്ടോസ് ഒക്കെ ആണെങ്കിൽ വളരെ മനോഹരമായിട്ട് എഡിറ്റ് ചെയ്യാനുള്ള ആപ്പുകൾ ഉണ്ട് അതുമാത്രമല്ല ഫോണിൽ തന്നെ അതിനുള്ള അതിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഫോണിൽ തന്നെ നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റും അദർവൈസ് ഇൻ കേസ് ലാപ്ടോപ്പ് അല്ലേ അല്ലെങ്കിൽ ലാപ്ടോപ്പിലൊക്കെ ആണെങ്കിൽ ഫോട്ടോസ് ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനായിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട് അപ്പോൾ അഡോബ് പ്രിമിയർ പ്രോ സോറി അഡോബ് ഫോട്ടോഷോപ്പ് ഇതൊക്കെയാണ് ഈ ഫോട്ടോഷോപ്പ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും അത് ചെറുതായിട്ടേ ചെയ്തിട്ടുള്ളൂ ബട്ട് അങ്ങനെ വലിയ കാര്യായിട്ടൊന്നും ചെയ്തിട്ടില്ല